ഹലോ ബ്രോഡ്ബാൻഡ് ഓഫീസല്ലേ ഞാൻ നിങ്ങളുടെ ബോഡബാൻഡ് യൂസറാണ് അപ്പോൾ വിളിച്ചത് എന്താണ് വെച്ചാൽ എൻ്റെ നിലവിലെ പ്ലാൻ എനിക്ക് മെച്ചപ്പെടുത്താനുണ്ട് സ ഉയർന്ന വേഗതകളിലേയിലേക്ക് മാത്രം എന്താന്ന് വെച്ചാൽ എൻ്റെ നിലവിലെ പ്ലാനിൻ്റെ ലിമിറ്റിന് അപ്പുറമാണ് എൻ്റെ യൂസേജ് അതിൽ എൻ്റെ പല സിസ്റ്റങ്ങളും വർക്ക് ചെയ്യിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്ലാൻ ലിമിറ്റ് എനിക്ക് പോരാ അതൊക്കെ വേഗത കൂടിയതും ഉയർന്നതായ പ്ലാനിങ് വേണം ലിമിറ്റ് കൂടിയതായ പ്ലാൻ വേണം അപ്പം അത് സംബന്ധമായ വിവരങ്ങൾ അറിയാനാണ് ഞാൻ വിളിച്ചത് എന്റെ നിലവിലെ പ്ലാനന്ന് മറ്റൊരു പ്ലാനിലേക്ക് പുതിയ പ്ലാനിലേക്ക് മാറുമ്പോൾ അതിന് ചാർജ് എത്ര വരും അതുപോലെ അതിൻ്റെ ലിമിറ്റ് എത്രയാണ് അതേമാതിരി ഹൈ സ്പീഡ് ഡാറ്റാ എത്ര എം മ്പി പെർ സെക്കൻറ് വരുന്ന സ്പീഡ് കിട്ടും നെറ്റ്വർക്ക് സ്പീഡ് കിട്ടും അതിൽ ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അതായിട്ട് ബന്ധപ്പെട്ട വരുമ്പം തരുകയാണെങ്കിൽ ഓക്കെ താങ്ക് യൂ